ആ നമസ്കാരം ഞാൻ എൻ്റെ പേര് സുജിത്ത് എന്നാണ് ആ ഞാൻ ഇവിടെ ഈ ഏരിയയില് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച് ഒന്ന് അറിയാനായിട്ട് വിളിച്ചതായിരുന്നു ഞാൻ ട്രക്കിങും പ്രകൃതി ഭംഗിയും കുറച്ച് കൂടി കൂട്ടിണങ്ങിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കണ്ണൂർ ജില്ലയിൽ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് അല്ല ഒരു രണ്ടു മൂന്നു ദിവസം ഒരു വെക്കേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് അവിടെ എങ്ങനെ താമസത്തിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടോ നമ്മളപ്പോൾ എത്തിപ്പെടുന്നതെങ്കിൽ എങ്ങനെയാ ട്രെയിനിന് വരുകയാണെങ്കിൽ കണ്ണൂരാണോ ഇറങ്ങേണ്ടത് തലശ്ശേരി ആണോ ഇറങ്ങേണ്ടത് കണ്ണൂര് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി അല്ലേ ആ ഡിസംബർ ലാസ്റ്റ് വീക്ക് ഓക്കെ ഓക്കെ അവിടെ മറ്റ് നമുക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് വേറെ എവിടെക്കെങ്കിലും കണക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ ഇപ്പോൾ പാലക്കയം തൊട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദിവസം ആയിരിക്കുമല്ലോ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടത് പിന്നെ അവിടുന്ന് ഇപ്പോൾ നമുക്ക് മൂന്ന് ദിവസത്തേക്ക് വരുമ്പോൾ അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോകാനിപ്പോൾ എന്താ പറയാ നിയർ ബൈ ഡിസ്ട്രിക്ട് ആയ വയനാടോ അല്ലെങ്കിൽ കാസർഗോഡോ അങ്ങനെ കാണാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ഓക്കെ അവിടെയൊക്കെ ഫീസ് ഉണ്ടോ എൻട്രി ഫീ ഉണ്ടോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ നിങ്ങളുടെ സേവനങ്ങൾ ഗൈഡ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമോ അതോ നിങ്ങളുടെ വേറെ മറ്റ് ആൾക്കാരാരെങ്കിലും അവിടെ ഉണ്ടാകുമോ നമ്മളെ സപോർട്ട് ചെയ്യാനായിട്ട് ആ ലോക്കലി ട്രാവൽ ചെയ്യാനുള്ള വാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞാൽ മതിയല്ലോല്ലേ ഓക്കെ നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ച് ഇടണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു